ഒരിക്കൽ ഞാൻ ഒരു ചിത്രം വരച്ചു അതായത് ഒരു മൂന്നാളുകൾ തോക്കും പിടിച്ച് അവരുടെ സൈന്യത്തോടൊപ്പം നിൽക്കുന്ന ഒരു ചിത്രം വരച്ചു അതോടൊപ്പം തന്നെ ഒരു മൂന്ന് വിമാനങ്ങൾ ഞാൻ ജെറ്റായി ഇരു രൂപത്തിൽ വരച്ചു അത് വരച്ചു അപ്പോൾ അതിൻ്റെ ആശയം ടീച്ചർ എന്താ അതിൻ്റെ ഓരോ ചോദിച്ചപ്പോൾ അതിൻ്റെ ആശയം ആദ്യം എനിക്ക് മനസ്സിലായി പിന്നീട് ആശയം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുകയും ചെയ്ത് ഈ ആശയംന്ന് പറയുന്നത് ഒരു ചിത്രം ഞാൻ വരച്ച് വരച്ചപ്പോൾ ആ ചിത്രത്തിൻ്റെ ആശയം എനിക്ക് മനസ്സിലായതെന്നു ചോദിച്ചാൽ നമ്മുടെ എന്താ ഹിറോഷിമ പോലെ നാഗസാക്കി പോലെ പല യുദ്ധങ്ങളും നടന്നിട്ടുണ്ട് അതിനെല്ലാം പിന്നെ അതിനെല്ലാം ശേഷമാണ് ഈ എന്താ തോക്ക് പിടിച്ച് ഞാനും നിൽക്കുന്ന ആൾക്കാരെ ഞാൻ വരച്ചത് കാരണം ഈ പല യുദ്ധങ്ങൾ നേരിട്ട നമ്മുടെ ഇന്ത്യൻ ആർമി പല യുദ്ധത്തിൽ നേരിട്ടു അതിൻ്റെ എന്താ അവരുടെ ഓർത്തെടുക്കുക ലക്ഷ്യത്തോടു കൂടി അവരുടെ ചിത്രം വരച്ചു പി അങ്ങനെ ചിത്രം വരച്ച് എനിക്ക് അതിൽ നിന്നെല്ലാം മനസ്സിലായി കാരണം ഒരു ചിത്രം വര പിന്നെ അപ്പോഴെനിക്ക് അതിൽ നിന്ന് മനസ്സിലായി ചിത്രം വരക്കുമ്പോൾ അതിൻ്റെ ആശയത്തോടു കൂടിച്ചേർന്ന് വരക്കണമെന്നും എനിക്ക് മനസ്സിലായി അത്രമേൽ അത്രമേൽ പ്രധാന്യമുള്ള അത്രമേൽ പ്രാധാന്യമാണ് ഈ ചിത്രം വരക്കുമ്പോൾ അതിൻ്റെ ആശയം ആദ്യം മനസ്സിലാക്കാൻ വളരെ ഏറെ ബുദ്ധിമുട്ടുകൾ സഹിച്ചാണെങ്കിൽ പോലും അതിൻ്റെ ആശയം മനസ്സിലാക്കാൻ കാരണം ഇപ്പോഴത്തെ ഏതു മ്യൂസിയത്തിൽ പോയി ചെന്നാലും ഇപ്പോഴത്തെ ഏത് മ്യൂസിയത്തിൽ പോയി ചെന്നാൽ പോലും എന്താ നമ്മൾ അതിനവിടെ കുറേ ചിത്രങ്ങളുണ്ടാകും കാരണം ആശയം എല്ലാം അതിൽ നിന്ന് നമ്മൾ പിടിക്കണം അതു കൊണ്ട് തന്നെ ഇതിൻ്റെ ആശയം വേറെ വലുതാണ് അപ്പോൾ തന്നെ മനസ്സിലാകുന്നത്